എക്സ്ചേഞ്ച് ബ്രോക്കറല്ലെ ആ ഞാൻ ഒരു സ്ഥലത്തിൻ്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ എന്നാന്ന് അറിയാമോ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്തൊരു പത്തുസെൻറ്റ് സ്ഥലം അതിൽ വീടും എവിടെയേലും ഉണ്ടോ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് ഒരു പത്തുസെൻറ്റ് സ്ഥലവും ഒരു വീടുംകൂടെ എവിടേലും കിടപ്പുണ്ടോ അമ്പലത്തിൻ്റെ അടുത്തു തന്നെ വേണം ആ ഒരു അൻപത് മീറ്റർ അകലത്തിൽ കിട്ടുവോ

ഒരു പട്ടയം വേണം അത് അല്ലാതെ വേറെ വീടുവേണം വീടില്ലാത്തതല്ല ഞങ്ങൾക്ക് വീട് വേണം അത്യാവശ്യം നല്ലൊരു വീടുവേണം ആ അത്യാവശ്യം കുഴപ്പില്ലാത്തൊരു വീട് വാർക്കവീട് വേണമെന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ആ ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നു വിളിച്ചായിരുന്നു ചേട്ടനെ സാധാരണ മൂന്ന് റൂമും സിറ്റൌട്ട് ഹാൾ ഒക്കെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു വീട് പേര വേണം അതെ ആ അതെ അതെ ആ മൂന്ന് മുറിയും ചെറിയ ഹാള് പട്ടയമെല്ലാം നിർബന്ധമാണ് പട്ടയം വേണം പിന്നെ വെള്ളം വേണമല്ലൊ വെള്ളം വേണം പട്ടയം വേണം പഞ്ചായത്തിൻ്റെ വെള്ളം ആ പഞ്ചായത്തിൻ്റെ വെള്ളം ആണല്ലെ കിണറുകെട്ടാനുള്ള സൗകര്യമുണ്ടോ

വണ്ടി വരുന്നതാണോ

ഈ സ്ഥലം ഒന്ന് കാണാനായിട്ട് എന്നാണ് ഒരു സൗകര്യം എന്നാണെന്ന് വെച്ചാൽ ഒന്ന് പറയാമോ ഞായറാഴ്ച പറ്റുവോ ഞായറാഴ്ച പറ്റുവോ ഞായറാഴ്ച ഞായറാഴ്ച എന്നാ ഒരു കാര്യം ചെയ്യാം പത്തുമണിയാകുമ്പം ആ പത്തുമണിയാകുമ്പത്തേനും ഞങ്ങൾ എങ്ങോട്ടാണ് വരണ്ടത് തോപ്രാംകുടി തോപ്രാംകുടി

ആ പൈസ സെന്റിന് എന്ത് വെച്ചാണ് വരുന്നത് സെന്റിന് എൺപതു വെച്ച് അല്ലെ നമുക്ക് അത് ഇച്ചിരി താഴ്ത്തി കിട്ടുവോ മ് നമുക്ക് ആദ്യമൊരു കാര്യം ചെയ്യാം ഒന്നു വന്നു കണ്ടിട്ട് നമ്മൾ ആദ്യം ഒന്നു കണ്ട് സൗകര്യം നോക്കാം ആ സെന്റിന് ഒന്നു കുറച്ചുകൂടി കുറച്ച് കിട്ടത്തക്ക രീതിയിലൊന്ന് ഒന്ന് പറഞ്ഞു നോക്ക് അവരോട് കാരണം നമുക്ക് വലിയ പൈസ ഇല്ല കയ്യിൽ ഇത് ആരുടെയാണ് എവിടെ ആരുടെയാണ് വല്ല താമസക്കാരുള്ളതാണോ അവിടെ അതെയോ അവിടെ അയൽക്കാരൊക്കെ നല്ല ആൾക്കാരാണോ ടൗണിലോട്ട് പോകാൻ ഒത്തിരി ദൂരമുണ്ടോ ഇല്ല അല്ലെ സ്കൂള് അടുത്തുള്ളതാണോ അത് ഏത് സ്കൂളാണ് അത് ആ അതെ അല്ലെ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഞായറാഴ്ച ഏതായാലും ഒരു പത്തുമണിയാകുമ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വരാം എന്നിട്ട് അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം ഒന്നിച്ചൊന്നു പോയി കാണാം എന്നാൽ അവരെ വിളിച്ചൊന്നു പറഞ്ഞേക്കാമോ ആ എന്നാൽ ആയിക്കോട്ടെ കേട്ടോ ഓക്കേ